ഹലോ സാര് ഇത് പാന് കാഡ് ഓഫിസാണോ ഞാന് പാന് കാഡിന് വേണ്ടി കഴിഞ്ഞ ദ മാസം തൊട്ടപേക്ഷിച്ച് അതിനിതുവരെയും റിപ്ലേ ഒന്നും കിട്ടിയില്ല എനിക്ക് വിദേശത്ത് പോവാന് പാന് കാഡില്ലാതെ പോവാന് പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാന് കാഡയച്ചരണം ഞാന് കുറച്ചുനാളുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പാന് കാഡ് ഇതുവരെയും പാന് കാഡ് ഇതുവരെയും എന്റെ കയ്യിലെത്തിയില്ല എനിക്ക് പാന് കാഡില്ലാതൊന്നും ചെയ്യാന് പറ്റത്തില്ല എന്റെ കാൻ പാന് കാഡിന്റെ സ്റ്റാറ്റസെന്തോവായെന്നറിയാന് വേണ്ടിയാണ് ഞാന് വിളിച്ചത് എന്റെ പാന് കാഡിന്റെ നമ്പര് നമ്പരൊന്ന് ഇല്ലാതെനിക്ക് പോവാന് പറ്റത്തില്ല എന്റെ തിരി തിരിച്ച നമ്പര് ഒമ്പത് അഞ്ച് മൂന്ന് നാല് ഏഴ് എട്ട് എന്റെ ജനനതീ ഇരുപത്തിയേഴ് നാല് ആയിരത്തൊള്ളായിരത്തി അന്പത്തിയാറാണ് എത്രയും പെട്ടെന്ന് ഇതിന്റെ സ്റ്റാറ്റസ് വെ പെട്ടെന്ന് അറിയിക്കണമെന്ന് ഞാനപേക്ഷിക്കുന്നു ടാങ്ക്യൂ സാര്